ഹലോ ദീപാ ട്രാവൽ ഏജൻസി ആരാണ് വിളിക്കുന്നത്

ആ ആ ആ ഇപ്പോൾ വെക്കേഷൻ പാക്കേജ് ഒത്തിരിയുണ്ട് പാലക്കാട് മലമ്പുഴ അതുപോലെ തിരുവനന്തപുരം കന്യാകുമാരി ആ ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാക്കേജ് ആണ് താൽപ്പര്യം ആ ആ ആ ആ ആ അങ്ങനയാണെങ്കിൽ ഞങ്ങളുടെ നെക്സ്റ്റ് വീക്കിൽ ഞങ്ങളുടെ ട്രിവാൻഡ്രം കന്യാകുമാരി പാക്കേജുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം ടു ഡേയ്സ് ആണ് വരുന്നത് അപ്പോൾ ഈവനിങ് ഇവിടുന്ന് പുറപ്പെടും അവിടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാനാണ് ആഗ്രഹം ബീച്ച് അത് പോലുള്ള സ്ഥലങ്ങളാണോ ആ ക്ഷേത്രം ക്ഷേത്രങ്ങളും ആ അതുപോലെ കുറച്ച് ആ ബീച്ച് പോലുള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ ആ അവിടെയാണ് തിരുവനന്തപുരത്ത് ഒത്തിരി ക്ഷേത്രങ്ങളൊക്കെയുണ്ട് അപ്പോൾ ആ ആറ്റുകാൽ ക്ഷേത്രമുണ്ട് അതുപോലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അവിടെയെല്ലാം നമുക്ക് സന്ദർശിക്കാൻ പറ്റും പിന്നെ അത് പോലെ പാലസ് കനകക്കുന്ന് കൊട്ടാരം കാണാം അതുപോലെ സൂ ഉണ്ട് ആ അങ്ങനെ ഒരു ദിവസം തന്നെ നടന്ന് കാണാനുള്ളതൊക്കെ തിരുവനന്തപുരത്തുണ്ട് അപ്പം വൺഡേ അവിടെ സ്റ്റേ ചെയ്യാം പിന്നെ നെക്സ്റ്റ് മോണിങ്ങ് കന്യാകുമാരിക്ക് പോവാം അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ബീച്ചൊക്കെ ആസ്വദിക്കാൻ പറ്റും വൺ നൈറ്റ് അവിടെയും സ്റ്റേ ചെയ്യാം ആ ആ ആ ഫുഡ്ഡ് ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏത് എവിടെയാണോ താമസം എന്ന് വെച്ചാൽ അവിടെ ഫുഡ്ഡ് അറേഞ്ച് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ഗേയ്ഡും ട്രാവലിങ്ങൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ എക്സ്ട്രാ പേമെൻറ്റ് തരുകയാണെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ആ ആ പെർ ഹെഡ് വൺ തൗസൻഡ് ഫൈ ഹഡ്രെഡ് ആണ് പെർ ഹെഡ്ഡ് അപ്പം നിങ്ങളെത്ര പേരാണ് പോവാനുദ്ദേശിക്കുന്നത് ആ നാല് പേര് ആ അപ്പോൾ അന്നത്തെ ഡേയ്റ്റ് ഒക്കെ ഒന്ന് കൺഫോം ആയിട്ട് വിളിച്ചറിയിക്കണം മാഡം അപ്പോൾ ഡീറ്റെയ്ൽസ് ഒക്കെ ഞാൻ പറയണം പറഞ്ഞ് തരാം ആ ഓക്കെ